ഞാനൊരു ചരിത്ര വിദ് വിദ്യാർത്ഥി ആയിരുന്നു അപ്പോൾ ഡിഗ്രിക്കും പ്രീഡിഗ്രിക്കും ഒക്കെ മെയിൻ വിഷയമായിട്ട് ഞാനെടുത്തത് പഠിച്ചത് ചരിത്രമാണ് അതുകൊണ്ട് അന്ന് വളരെയധികം ചരിത്ര നോവലുകളൊക്കെയാണ് വായിച്ചുക്കൊണ്ടിരുന്നത് എനിക്ക് ചരിത്ര നോവലൊക്കെ വളരെയധികം ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച് ഒരുപാട് തവണ വായിച്ചിട്ടുള്ള വീണ്ടും വീണ്ടും വായിച്ചിട്ടുള്ള ഒരു നോവലാണ് മാർത്താണ്ഡ വർമ്മ സി വി രാമൻപിള്ളയുടെ നോവലാണ് മാർത്തണ്ഡ വർമ്മ അദ്ദേഹം എഴുതിയത് തന്നെയാണ് പിന്നെ ധർമ്മരാജ രാമരാജ ബഹ്ദൂർ തുടങ്ങിയ ചരിത്ര നോവലുകളും ഞാനൊരുപാട് വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അപ്പു നെടുങ്ങാടിയുടെ കുന്തലത ഇങ്ങനെ ഈ ചരിത്ര നോവലും വായിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് ഈ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലെന്ന് പറയുന്നത് മാർത്താണ്ഡ വർമ്മയാണ് കാരണം നമ്മുടെ തിരുവിതാംകൂർ രാജവംശം വളരെയധികം വികാസം പ്രാപിച്ചതും മാർത്താണ്ഡ വർമ്മയുടെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ പത്മനാഭ ദാസനെന്നാണ് മാർത്താണ്ഡ വർമ്മയെ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ് നമ്മുടെ ട്രാൻസ്പോർട്ട് വളരെയധികം വികസിച്ചത് അതുപോലെ ഇ കൊ രാജകൊട്ടാരത്തിൻ്റെ സംഭാവനയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പല ആശുപത്രികളിലും ഒന്ന് പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഈ രാജവംശത്തിൻ്റെ സംഭാവനയായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്ന സമയത്ത് വളരെയധികം ഒരുപാട് വികസനമാണ് നമ്മുടെ തിരുവനന്തപുരത്തിന് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ സ്കൂളുകൾ ഒരുപാട് സ്കൂളുകൾ വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്കൂളെന്ന് പറയുന്നത് എസ് എൻ വി സ്കൂള് തിരുവനന്തപുരം പിന്നെ അതുപോലെ തന്നെ ആശുപത്രി എസ് പി ഫോർട്ട് ആ എസ് പി ഫോർട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ തൈക്കാട് ഹോസ്പിറ്റൽ ഇതൊക്കെ മാർത്താണ്ഡ വർമ്മയുടെ സംഭാവനയാണ്